എൻ്റെ നാട് മനോഹരമായ കേരളം കേരളത്തിലെ ഏറ്റവും സാംസ്ക്കാരികവുമായ ഉത്സവമാണ് ഓണം ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഒരു വിളവെടുപ്പ് മഹോത്സവമാണ് പണ്ട് കേരളം ഭരിച്ചിരുന്ന കേരളത്തെ പറ്റിയുള്ള ഐതിഹ്യം കേരം നിറഞ്ഞ നാടാണ് കേരളമെന്നാണ് പറയുന്നത് പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി പരശുരാമൻ മഴുവെറിഞ്ഞ് കന്യാകുമാരി യില്നിന്ന് ഗോകർണ്ണത്തേയ് കട മഴുവെറിഞ്ഞ് കടൽതീരം മാറിയാണ് ഇന്നത്തെ കേരളമുണ്ടായതെന്നാണ് ഐതിഹ്യം ആ കേരളം ഭരിച്ചിരുന്ന നീതിമാനായ ഒരു ചക്രവർത്തിയായിരുന്നു മഹാബലി ആ മഹാബലി ദാനധർമ്മിഷ്ഠനായിരുന്നു ആ മഹാബലി ൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മള് കേരളം കേരളീയര് ഓണം ആഘോഷിക്കുന്നതെന്നാണ് നമ്മുടെ ഐതിഹ്യം പറയുന്നത് ആ മഹാ മഹാബലിയുടെ ദാനശീലം പരീക്ഷിക്കുന്നയ്നായി മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിലൊന്നായ വാമനൻ മഹാബലിയുടെ രാജകൊട്ടാരത്തിൽ ചെല്ലുകയും മഹാബലിയോട് തപസ്സനുഷ്ഠിക്കാൻ രണ്ടടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ധർമ്മിഷ്ഠനായ മഹാബലി അളന്നെടുത്തോളാൻ പറഞ്ഞു പക്ഷെ പെട്ടെന്നു തന്നെ വാമനൻ വലുതാവുകയും രണ്ടടി കൊണ്ട് ഭൂമിയും സ്വർഗ്ഗവും പാതാളവും അടന്ന് മൂന്നാമത്തെ അടിവയ്ക്കാൻ സ്ഥലം എവിടടെയെന്നു ചോദിച്ചപ്പോൾ ദാനശീലനായ മഹാബലി തൻ്റെ ശിരസ്സ് കാട്ടിക്കൊടുത്തു അങ്ങനെ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ചവിട്ടി താഴ്ത്തുന്ന സമയം മഹാബലി ആവശ്യപ്പെട്ട ഒന്നാണ് ചിങ്ങ മാസത്തില് തൻ്റെ പ്രജകളെ കാണാൻ തനിക്ക് വരണം എന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മഹാ കേരളീയര് ഓണം ആഘോഷിക്കുന്നേന്ന് ഐതിഹ്യം എന്നാൽ കേ ഓണം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വിളവെടുപ്പ് മഹോത്സവമാണും പണ്ട് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന മലയാളികൾ എല്ലാ വിളകളും കൃഷി ചെയ്തു ആ വിളവെടുക്കുന്ന ആ കൃഷി ആ വിളവെടുപ്പിൻ്റെ വിളവെടുത്ത് ഉണ്ടോ ആ വിളവെടുപ്പിലൂടെ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരുക്കിവെച്ച് വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ട് ഇരുപത്തിയെട്ട് ദിവസം ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ട് കേരളത്തിലുണ്ടായിരുന്നു കാലം മാറി കഥ മാറി എന്ന് പറയുന്നതു പോലേ ഓണം ഇന്ന് ഇൻസ്റ്റന്റ് ഓണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള ഓണത്തെപ്പറ്റി പറയുകയാണെങ്കില് വളരെയധികം സന്തോഷം നിറഞ്ഞിരുന്നൊരു കാലമാണ് ഓണം എന്ന് കേള്ക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓണപരീക്ഷയാണ് ഓണ പരീക്ഷ കഴിഞ്ഞുകഴിഞ്ഞ് വീട്ടിലേക്കു വന്നു കഴിയുമ്പോൾ കഴിയുമ്പഴേക്കും വീട്ടിൽ ഊഞ്ഞാലിടും അത്തം മുതല് പൂക്കളമൊരുക്കും പിന്നെ ഓണത്തെപറ്റി എനിക്ക് ഈ ഓണമെന്ന് പറയുമ്പോള് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വീട്ടിലെ നെല്ലൊക്കെ കൊയ്തെടുത്ത് കറ്റമെതിക്കുന്നതും ആ കറ്റയുടെ മുകളിലൂടെ കയറി ഓടി ചാടുന്നതും അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കാലമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അന്യംനില്ക്കുന്ന കാലവും അതൊക്കെ തന്നെയാണ് പിന്നീട് രാവിലെ പൂപറിക്കാൻ പോകുന്നതും ആ പൂവ് ഉപയോഗിച്ച് അത്തമിടുന്നതും പിന്നെ ഓണത്തെ ഓ ഓണത്തിനെ തുടർന്ന് എല്ലാ വീടുകളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതും വൃത്തിയാക്കുന്നതും ഓണക്കോടി എടുക്കുന്നതും ഓണസദ്യ ഉണ്ണുന്നതും എൻ്റെ ഏറ്റവും ഗൃഹാതുരിതമായ ഓർമ്മകളാണ് പിന്നീട് ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നത് പ്രത്യേകിച്ച് അമ്മയുടെ വീട്ടിൽ പോകുന്നത് വർഷത്തില് ഒന്നോ രണ്ടോ തവണയാണ് അമ്മവീട് സന്ദർശിക്കാറുള്ളത് ഈ സമയത്ത് ഓണ സമയത്ത് പ്രത്യേകിച്ചും അമ്മയുടെ വീട്ടിൽ പോവും അവിടെ അവിടെ സമപ്രായക്കാരായ ധാരാളം കൂട്ടുകാരുണ്ട് അവരുമായിട്ട് കളിക്കും അങ്ങനെ ഓണം വളരെ സന്തോഷത്തോടും ഐക്യത്തോടും എനിക്ക് പലതരത്തിലുള്ള ഉപ്പേരികളും ഓണസദ്യയും ഓണപ്പായസമൊക്കെ കൂട്ടിക്കഴിച്ച് കളിച്ചു തിമിർത്ത് യാതൊരു ദുഃഖവും അലട്ടാതിരുന്ന ആ ഒരു ഓണക്കാലമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇന്ന് ആ അന്നത്തെ ആ അമ്മ കഷ്ടപ്പെടുന്ന അതായത് ആ നെല്ല് പുഴുങ്ങാനും മുളകും മല്ലിയും ഇടിക്കാനുമൊക്കെ വിറക് ശേഖരിക്കാനൊക്കെ അമ്മ കഷ്ടപ്പെടുന്നാ കാലം ഓർക്കുമ്പോള് ഇന്നത്തെ ഓണത്തെ പറ്റി എനിക്കത്രയ്ക്കൊന്നും നല്ല ഓർമ്മകള് ആയിട്ടെനിക്ക് പഴയകാലമായിട്ട് താരതമ്യം ചെയ്യുമ്പോള് എനിക്ക് തോന്നാറില്ല കാരണം ഇന്ന് ഇന്നത്തെ ഓണമെല്ലാം ഇൻസ്റ്റന്റ് ഓണമായി അച്ചാറുകള് നമുക്ക് കിട്ടും ഓണസദ്യ നമ്മള് ഇന്ന് ഓൺലൈൻ ബുക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിലേക്കെത്തും നമ്മള് യാതൊരു രീതിയിലും കഷ്ട്ടപ്പെടണ്ട

പല സ്ഥലങ്ങളിലേക്ക് ടൂര് പോവുകയും എടുക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു കാലമാണ് എങ്കിലും എൻ്റെ പിന്നെ ഈ ഓണത്തിൻറ്റെ ബാല്യകാലത്തുള്ള ഓണം ആഘോഷിക്കുമ്പോഴും ഓണം കഴിഞ്ഞുള്ള അവസാന ദിവസങ്ങളില് മനസ്സിന് ഭയങ്കര ഒരു ഭയമാണ് ഓണം കഴിഞ്ഞിട്ടുള്ള ഓണപരീക്ഷയുടെ മാർക്ക് അതു മാത്രമേ ആ ഓണക്കാലത്ത് എന്നെ അലട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ വെച്ച് നോക്കുമ്പോള് എൻ്റെ എന്നെ ഏറ്റവും സ്വാധീനിച്ച എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്നു പറയുന്നത് ഓണം തന്നെയാണ്